ഞങ്ങളുടെ പ്രദേശത്ത് പതിവായി കാണുന്ന ചില പക്ഷികൾ എന്നു പറയുന്നത് കാക്ക മൈന അതുപോലെ പ്രാവ് കുയിൽ ഇരട്ടത്തലച്ചി എന്നിവയൊക്കെയാണ് ഇതിൽ ഏറ്റവും ഭംഗി നിരീക്ഷിക്കാൻ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ കുയിലിനെത്തന്നെയാണ് അവയുടെ ആ കിളിനാദം ആ അത് കേൾക്കാൻ തന്നെ മനോഹരമാണ് അതുപോലെ ഇരട്ടത്തലച്ചി ഇരട്ടത്തലച്ചി എന്നു പറയുമ്പോൾ കണ്ണാടി കാണുമ്പോൾ അത് വന്ന് അതിൻ്റെ പ്രതിരൂപം കണ്ട്കളിക്കുന്നത് കാണാൻ വളരെ രസം തന്നെയാണ് പിന്നെ പറയുന്നത് കാക്ക കാക്ക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ വരുന്നത് ചാ നമ്മുടെ പരിസരം വൃത്തിയാക്കു ന്നതിനെയാണ് പിന്നെയുള്ളത് പ്രാവാണ് പ്രാവിൻ്റെ കുറുകൽ എന്നു പറയുന്നത് വളരെ ഭംഗി തന്നെയാണ് അരിപ്രാവാണ് കുടുതലായിട്ടും ആ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നത് അത് കൂട്ടമായി വരികയും ധാന്യങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നത് കാണാൻ വളരെ ഭംഗിയാണ് കുയിലിൻ്റെ കിളിനാദം കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം